ഹലോ ആ മനീഷെ വീട് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ ആ നമുക്കിവിടെ നമുക്കിവിടെ തന്നെ ഇവിടെ ഇവിടെ എവിടെയാ ഉദ്ദേശിക്കുന്നത് ആ ഓക്ക നമുക്ക് പാറപ്പള്ളി അവിടെ വീട് കിടപ്പുണ്ടായി മൂന്ന് ബെഡ്റൂമ് പാറപ്പള്ളി ഇല്ലേ പാറപ്പള്ളിയില്ലേ ആ പാറപ്പള്ളി പാറപ്പള്ളി ആയിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അടുത്ത് വരും പാറപ്പള്ളി പാറപ്പള്ളിക്കടുത്ത് സഞ്ജീവനി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമ് കൂടെ ഒരു ഇരുനില വീടാണ് ഇരുനില വീടാണ് അതിൻ്റെ മേൽഭാഗം ആ അല്ലല്ല നമുക്ക് താഴെ മൂന്ന് ബെഡ്റൂമുണ്ട് അത് താഴെ നമുക്ക് ഉപയോഗിക്കാം ആ താഴെത്തന്നെ മൂന്ന് ബെഡ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമ് പിന്നെ പുറത്തൊരു ബാത്ത്റൂമുണ്ട് അത്യാവശ്യം മുറ്റം പിന്നെ പുറകിൽ അത്യാവശ്യം ഉണ്ട് പിന്നെ മു കൊടുക്കത്തൊള്ളൂ മുകളിൽത്തെ ഫ്ലോറിലെ വീട്ടുകാരുടെ സാധനങ്ങളും കാര്യവും ഒക്കെ ഇരിക്കുവാണ് താഴെ ആകുമ്പത്തേക്കും നല്ല താമസിക്കാനും ഒക്കെ അത് മതിയോ വാഹനങ്ങൾ വാഹനങ്ങൾ കയറ്റിയിടാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ പതിനഞ്ച് രൂപയാണ് വാടക ഒരു ലക്ഷം രൂപ സെക്യൂർട്ടിയണെ ആ ഒരു ലക്ഷം രൂപ സെക്യൂരിട്ടി അതെ അതെ അതെ അതെ അതെ എഗ്രിമെൻറ് സാധാരണ ഒരു വർഷം ഉള്ളൂ പതിനൊന്ന് മാസത്തേക്കാ എഴുതുന്നത് പതിനൊന്ന് മാസത്തേക്ക് പിന്നെ അത് കൂടാതെ വേറെ വീടുണ്ട് നമ്മുടെ വേറെ ഈ വീടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് കൊടുക്കുന്ന വീടാ കൊടുക്കുന്ന വീടാ അതാവുമ്പോൾ കുറച്ച് സ്ഥലവും കാര്യവും ഒക്കെ ഉണ്ട് നമുക്ക് അവിടെ അവിടെ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യും തേങ്ങയൊക്കെ വീഴുന്നതോ വിറകോ കാര്യവും ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം വാരപ്പള്ളി അല്ല വാരപ്പള്ളി അല്ല അത് അത് ഇച്ചിരികൂടെ മാറിയാണ് അത് അത് നമ്മുടെ എന്താ വാരപ്പള്ളി അല്ല കുറച്ചുകൂടെയും അവിടുന്ന് ഒരു ഏകദേശം ഒരു അര കിലോമീറ്ററ് പാരപ്പള്ളി അത് വ്യത്യാസം ഉണ്ട് അര കിലോമീറ്ററ് അത് ഒറ്റിയാണ് പത്ത് ലക്ഷം ആണ് അവർ പറയുന്നത് ഒറ്റിയ്ക്ക് പത്ത് ലക്ഷം രൂപ ഒറ്റി അപ്പം നമുക്ക് അപ്പം അവിടെ സാധനം ഒക്കെ ഉപയോഗിക്കാം ഒരു വർഷത്തെ നമുക്ക് ഒരു അതാണ് രണ്ട് വർഷം ഒക്കെ എഴതുന്നത് രണ്ട് വർഷത്തേക്ക് വേണ്ടി എഴുതാം ആ പത്ത് ലക്ഷം രൂപ ഒറ്റി ഒറ്റയ്ക്കൊക്കെ ആവുമ്പോൾ നല്ല കാര്യം അല്ലേ അങ്ങനെ ആവുമ്പോളത്തേക്ക് നമ്മുടെ ക്യാഷ് ഒരിടത്ത് കിടക്കും അതല്ല അതപ്പം വേറൊരു കാര്യം ഉണ്ട് പറമ്പും കാര്യം ഒക്കെ ഉണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടേ ഇത് ആദായം കത്ത് ഇതിനകത്ത് സൗകര്യം ഉള്ള സ്ഥലം അപ്പം നമുക്ക് ആദായം എടുക്കാം ആദായം എടുക്കാം നമുക്ക് എടുക്കാം അങ്ങനെയാാണ് ഇത്